ഗ്രാമ പ്രദേശങ്ങളിൽ ആളുകൾ നിയമപരമായും സേവനങ്ങൾ മൂലം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്നോട് ചോദിച്ചാൽ ഞാൻ എങ്ങനെയാണ് പറയേണ്ടത് കാരണം ഞാൻ ഗ്രാമത്തിലല്ല താമസിക്കുന്നത് ഞാനൊരു സിറ്റി ഏരിയയിലാണ് താമസിക്കുന്നത് ഇപ്പം ഗ്രാമ പ്രദേശങ്ങളിൽ ഞാനിപ്പോൾ ഒരു സോഷ്യൽ വർക്ക് പഠിക്കുന്ന ഒരു കുട്ടി എന്ന ഒരു നിലയിൽ ഞാനിപ്പോൾ ഉത്തരം പറയുകയാണെങ്കിൽ ഞാനിങ്ങനെ ഗ്രാമ പ്രദേശങ്ങളിലൊക്ക പോയി വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെത്തെയൊരു രീതിയിൽ പറയുകയാണെങ്കിൽ അവിടെയുള്ള ഒരു നിയമ സംവിധാനങ്ങളൊന്നും ഭയങ്കര ശക്തമായിട്ടുള്ള ഒരു കാര്യവും അല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ കരുതുന്നത് കരുതുന്നത് മാത്രമല്ല എൻ്റെയൊരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് അനുഭവം വച്ചിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെയല്ല എന്നാണ് ഞാൻ കരുതുന്നത് കാരണം രാജസ്ഥാനിൽ ഒരു ഉൾഗ്രാമമായ ഒരു സ്ഥലത്ത് സാഗ്വാരാ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഞാൻ ഫീൽഡ് വർക്ക് ചെയ്യാൻ എനിക്ക് അവസരമുണ്ടായി അപ്പം അങ്ങനെ പോയ സമയത്ത് അവിടെ ചൈൽഡ് മാര്യേജ് നടക്കുന്നു അതായത് ബാല വിവാഹം നടക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു അപ്പം അവിടെ അങ്ങനെ ഒരു ഭയങ്കര രീതിയിലുള്ള ഒരു നിയമസംവിധാനം ഇല്ലാത്തതിൻ്റെ കാരണമായിട്ടാണ് ഇതൊക്കെ നടക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത് അതുപോലെ തന്നെ വക്കീലും പോലീസ്കാരും ഒക്കെ നല്ല രീതിയിൽ ഇടപെട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കത്തില്ലായിരുന്നു കാരണം ബാല വിവാഹം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യുഷൻ ഇന്ത്യൻ നിയമത്തിൽ അത് ഒരു ഇല്ലീഗൽ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം അത് നടക്കുക എന്ന് പറയുന്നത് ഇതിൻ്റെ ഒന്നും ഇതിൻ്റെയൊന്നും ഒന്ന് ആൾക്കാർക്ക് അതിനെപ്പറ്റി ഗ്രാമത്തിലുള്ള ആൾക്കാർക്ക് ഇങ്ങനെയുള്ള നിയമങ്ങളെപ്പറ്റിയെന്നും ഉള്ള സേവനങ്ങളെപ്പറ്റിയൊക്കെ ഉള്ള അറിവുകളില്ലാത്തത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഈ പോലീസ്കാർ അങ്ങനെയുള്ള സംവിധാനങ്ങൾ സർക്കാർ സംവിധാനങ്ങളുടെ ഇടപെടുലകളുടെ കുറവ് കൊണ്ട് തന്നെ ആയിരിക്കാം അതുപോലെ തന്നെ ഇപ്പോൾ ആവശ്യങ്ങൾ ഇപ്പം ഗ്രാമത്തിലുള്ള ആൾക്കാർക്കുള്ള ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കാനുള്ള നിറവേറ്റി കൊടുക്കാൻ ഇപ്പഴും ഗ്രാമത്തിലുള്ള ആൾക്കാരെന്ന് പറയുമ്പം അവരെ തള്ളിക്കളയുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് ഇപ്പം നമ്മുടെ ഇപ്പം സർക്കാരായാലും ഗ്രാമത്തിലുള്ള ആൾക്കാരല്ലേ കർഷകരെ ഒക്കെ ഇപ്പം കർഷകരുടെ പ്രശ്നങ്ങളൊക്കെ വരുന്നത് നമുക്കറിയാം കർഷകരല്ലേ അവർക്ക് ഈ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ എന്താ എന്നുള്ള രീതിയിൽ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെത്തന്നെ പോലീസ്കാരെയൊക്കെ ഉപയോഗിച്ച് അവരെ അടിച്ചമർത്താനുള്ള ഒരു ഒരു രീതിയും നമ്മൾ കണ്ട് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഗ്രാമ പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് നിയമപരമായ സേവനങ്ങൾ അവർക്ക് ബുദ്ധിമുട്ട് തന്നെയാണ് ഈ മാറി വരുന്ന സർക്കാരുകളായാലും അവർക്ക് ആനുകൂല്യങ്ങളൊന്നും ചെയ്ത് കൊടുക്കുന്നില്ല അവർക്ക് കൊടുക്കേണ്ട സേവനങ്ങൾ പോലും കൃത്യമായിട്ട് കൊടുക്കുന്നില്ല അപ്പോൾ അത് അവർക്ക് തീർച്ചയായിട്ടും ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം തന്നെയാണ്